ഞാന് ഓൺലൈനിലൊരു പാവാട വാങ്ങാനാഗ്രഹിക്കുന്നുണ്ട് അപ്പോള് നിങ്ങളുടെ വെബ്സൈറ്റില് ആ പാവാടയുടെ ഓപ്ഷനുകള് കണ്ടായിരുന്നു പല കളറുകളും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എങ്കിലും എനിക്ക് വേണ്ടത് ഒരു ബ്രൗൺ കളറിലുള്ളൊരു പാവാടയാണ് അതാറ് പ്ലീറ്റ്സ് ഉള്ളതായിരിക്കണം ഒരു നാല്പ്പത് ഇഞ്ച് ഇറക്കവും വേണം കോട്ടണ് ആയിരിക്കണം അങ്ങനെ ഉള്ളൊരു പാവാടയ്ക്ക് എത്ര രൂപ വിലയാകും അത് നമ്മള് ഓഡര് ചെയ്തുകഴിഞ്ഞാല് എത്ര ദിവസം കൊണ്ട് നമുക്കത് കിട്ടാൻ സാധിക്കും ഞാൻ പാറത്തോട് എന്ന പ്രദേശത്തുനിന്നാണ് ഇടുക്കി ജില്ലയിൽ പാറത്തോട്ടിലാണ് താമസിക്കുന്നത് അപ്പോള് എന്ന് നമുക്കത് കിട്ടാൻ സാധിക്കും എന്നത്തേക്കാണ് നമ്മള് ഓഡര് ചെയ്യേണ്ടത് എത്ര രൂപയാകും എല്ലാ വിവരങ്ങളുമൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാമോ